ഹലോ ടൂറിസ്റ്റ് ഗൈഡ് അല്ലെ എനിക്കില്ലെ ഒന്ന് മൂന്നാർ വരെ പോവാൻ വേണ്ടീട്ടായിരുന്നു അപ്പം മൂന്നാറിലെ സ്ഥലങ്ങളെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടീട്ടായിരുന്നു നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള നമുക്കിപ്പം ട്രക്കിംഗിന് കാര്യങ്ങൾക്ക് ഒക്കെ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ ഒക്കെ മൂന്നാറിൽ വരുന്നത് അല്ലെ ആ ആ പിന്നെ തേയില തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ആണോ ഇത് വരുന്നത് അതായത് ഷിപ്പിൽ വരുമ്പം അത് കാണാതെ സെറ്റ് ചെയ്തേക്കുന്നത് അല്ലെ അത് ഇങ്ങന നല്ല അടിപൊളി ആയിരുന്നു അടിപൊളി ആയിട്ടാണോ ഉള്ളത്

ആ ഈ റേറ്റ് കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഒരാൾക്ക് അറുന്നൂറ്റയൻപത് അല്ലെ ഞങ്ങൾ കുറച്ച് കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പറയോ ഒരു പത്ത് പതിനഞ്ച് പേര് ഉണ്ടാവും ആണല്ലെ ഇന്ന് നിങ്ങൾ ഇങ്ങനെ പരമാവധി നോക്ക് അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഒരു പതിനഞ്ച് പേർ ഉണ്ടാവും അപ്പം ഞങ്ങൾക്ക് വണ്ടിയും കാര്യങ്ങൾ ഒക്കെ വേണം അപ്പം നിങ്ങൾ ഒരു പത്ത് ദിവസത്തെ ആ ഒരു ക്യാബ് നമുക്ക് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുവാണെങ്കിൽ വളരെ ഉപകാരം ആയിരുന്നു കാരണം ഞങ്ങൾ ഒരു പത്ത് ദിവസത്തേക്ക് മൂന്നാറിലേക്ക് വരാൻ വേണ്ടീട്ടാണ് അപ്പം നമുക്ക് അവിടെ ആ ഞങ്ങൾക്ക് റൂമ് കാര്യങ്ങൾ ഒക്കെ റിസോർട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടല്ലെ നല്ല അടിപൊളി ആയിട്ടുള്ള ആ അപ്പം പിന്നെ ഈ പൈസ ആയാലും കുഴപ്പം ഇല്ല ആ കുറച്ച് നല്ല ക്യാഷ് ആയാലും കുഴപ്പം ഇല്ല നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു റിസോർട്ട് ആണ് ആംബിയൻസ് ഉള്ള റിസോർട്ട് കാര്യങ്ങൾ ഒക്കെ വേണം പത്ത് പേർക്ക്

ആ അങ്ങനത്തെ ഒക്കെ ആണെങ്കിലും കുഴപ്പം ഇല്ല എങ്ങനത്തെ ആണെങ്കിലും വിഷയം ഇല്ല നമുക്ക് അത് സെറ്റപ്പാക്കി തന്നാൽമതി ആ അങ്ങനെ ആണെങ്കിൽ ഞാൻ നാളെ കോൺടാക്ട് ചെയ്യാം നാളെ കോൺടാക്ട് ചെയ്തിട്ട് മറ്റന്നാൾ നിങ്ങളൊന്ന് വണ്ടി വിട്ടാൽ മതി ലൊക്കേഷൻ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം